നീന്തൽ ക്രിക്കറ്റ് പദയാത്ര തുടങ്ങിയ പ്രവർത്തനങ്ങളിൽ ഞാൻ ക്രിക്കറ്റ് പദയാത്ര തുടങ്ങിയ പ്രവർത്തനങ്ങളിൽ സ്ഥിരമായി ഏർപ്പെടാറുള്ള ഒരു വ്യക്തിയാണ് നീന്തൽ എനിക്കധികം വശമില്ല എന്നാലും ഒരു അപകടങ്ങളിൽ നിന്ന് കര കേറാൻ വിധമുള്ള നീന്തൽ ഞാൻ സ്വായത്തമാക്കിയിട്ടുണ്ട് എന്നാൽ ക്രിക്കറ്റ് പദ യാത്ര തുടങ്ങിയ പ്രവർത്തനങ്ങളിൽ നിരന്തരം ഏർപ്പെട്ട് അതിൽ ഒരു നൈപുണ്യം തന്നെ എനിക്കുണ്ട് ക്രിക്കറ്റ് ഞങ്ങളുടെ തദ്ദേശീയ ക്ലബ്ബുകളിലും ഞങ്ങളുടെ സുഹൃത്തുക്കളുടെ ഇടയിലും കളിച്ച് വളരെ പ്രാവീണ്യം നേടിയ ഒരു വ്യക്തിയാണ് ഞാൻ അതുപോലെ തന്നെ ക്രിക്കറ്റ് എന്നത് ഞങ്ങൾ ഞാൻ വളരെ കൊല്ലമായി ഫോളോ അപ്പ് ചെയ്തുകൊണ്ട് വരുന്ന ഒരു കായിക വിനോദമാണ് ക്രിക്കറ്റിലാണ് ഞാൻ എൻ്റെ ചെറുപ്പം മുതൽ സന്തോഷം കണ്ടെത്തിയിരുന്നത് ക്രിക്കറ്റ് താരങ്ങളെയും അവരുടെ ലൈഫ് സ്റ്റൈല് ഫോളോ അപ്പ് ചെയ്യാൻ ഞാൻ മാക്സിമം ശ്രമിച്ചിട്ടുണ്ട് അവരുടെ വ്യക്തി വികാസത്തേയും അവരുടെ ഡയറ്റ് പ്ലാൻ തുടങ്ങിയവ എൻ്റെ ജീവിതത്തിലേയ്ക്ക് അഡോപ്റ്റ് ചെയ്യാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട് പദയാത്ര എന്നത് ഒരു പാർട്ടിക്കുലർ കമ്മ്യൂണിറ്റിയെയോ ഒരു രാഷ്ട്രീയ പാർട്ടിയെയോ ബേയ്സ് ചെയ്തുള്ള പദയാത്രകളിൽ ഞാൻ ഏർപ്പെടാറില്ല എന്നാൽ ഒരു സാംസ്കാരിക സമിതിയുടെയോ എന്തെങ്കിലും ആശയങ്ങൾ ഊന്നിക്കൊണ്ടുള്ള സമാധാനത്തിന് വേണ്ടിയുള്ള ഒരു പദയാത്രയാണെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും അതിൻ്റെ മുൻപന്തിയിൽ തന്നെ കാണും ഇതൊക്കെയാണ് താഴെ തന്നിരിക്കുന്ന പ്രവർത്തനങ്ങളിൽ എനിക്ക് ഏറ്റവും ഉചിതമായിട്ട് തോന്നിയിട്ടുള്ളത് ക്രിക്കറ്റെന്നുള്ളത് ഞങ്ങളുടെ ആ ഒരു തലമുറക്കിടയിലുള്ള വികാരമാണ് വീരേന്ദ്ര സേവാഗാണ് എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ക്രിക്കറ്റ് താരം അദ്ദേഹത്തിൻ്റെ ലൈഫ് സ്റ്റൈലും അദ്ദേഹത്തിൻ്റെ ഡയറ്റ് പ്ലാനും അദ്ദേഹത്തിൻ്റെ ഒരു സ്വഗ്ഗ് രീതികളെല്ലാം എൻ്റെ ജീവിതത്തിലേയ്ക്ക് അഡോപ്റ്റ് ചെയ്യാനും ആ ഒരു പ്രായത്തിലെ അനുകരണ ശ്രമം അതുപോലെ തന്നെ ചീന്തിയെടുക്കാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട് താങ്ക് യു